ആ ഡാൻസ് ടീച്ചറല്ലേ ആ ഞാനിങ്ങനെ ഡാൻസിനെപ്പറ്റി ഡാൻസ് പഠിക്കാനോ അതിനെപ്പറ്റി അറിയാനും വേണ്ടി വിളിക്കുന്ന ഒരു സ്റ്റുഡന്റായിരുന്നേ ഞങ്ങള് വയനാട്ടില്നിന്നാണ് ഡയറക്റ്റായിട്ട് വന്നു പഠിക്കാനാണ്

അത് ഇപ്പോള് ഏത് ഏതൊക്കെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അതില് ഏതാണു നല്ലത് എനക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ല അപ്പോള് ഒന്നു പറഞ്ഞുതരാമോ ആണോ ആ ഓക്കെ അപ്പോള് ഞാനൊരു ബിഗിനറാണ് ആണ് അപ്പോള് എനിക്ക് ഏതായിരിക്കും പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പം ആ അതെ അതെ അങ്ങനെ പ്രത്യേകിച്ചു താല്പര്യങ്ങളൊന്നും ഇല്ല അപ്പോള് അതിനൊക്ക എത്രയാണ് ഫീസ് വച്ചിരുന്നത് ആ അതെ ആ അപ്പോള് ഞാൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് പാർട്ട് ടൈം ആയിരിക്കും പറ്റത്തുള്ളൂ

പക്ഷെ ഓൺലൈനായിട്ടു ചെയ്താല് അതു നല്ലതായിരിക്കുമോ ഡയറക്റ്റ് വരുന്നത്ര ഇതാവൂല്ലല്ലോ ആണോ ആ എന്നാല് ഡയറക്റ്റായിട്ടു നോക്കാം ആ ഓക്കെ താങ്ക്യൂ